നീന്തല് അതായത് നീന്തല് അങ്ങനെ അറിയില്ല പക്ഷെ നീന്താൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് നീന്താൻ ഭയങ്കര ഇഷ്ട്ടമാണ് പക്ഷെ പേടികൊണ്ട് അങ്ങനെ നീന്തൽ ഒന്നും വലുതായിട്ട് അറിയില്ല അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ ഒന്നും ഞാൻ ഏർപ്പെടാറില്ല പക്ഷെ നീന്താൻ ഒക്കെ ഒരുപാടു ശ്രമിച്ചിട്ടുണ്ട് ആരോടെങ്കിലും പഠിപ്പിക്കാൻ പറയാറോക്കെ ഉണ്ട് ഇനിയും പഠിക്കണമെന്ന് ഒക്കെയുണ്ട് പിന്നെ ക്രിക്കറ്റ് എന്നുവെച്ചിട്ടുണ്ടങ്കില് ക്രിക്കറ്റ് കളിക്കാൻ അതായത് കാണാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടം സച്ചിനെയാണ് പിന്നെ ധോണിനെ ഇഷ്ടമാണ് പിന്നെ വിരാട് കോഹിലിനെ ഇഷ്ടമാണ് രാഹുൽ ദ്രാവിഡ് അങ്ങനെ ഉള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ കളിക്കൽ ഉണ്ട് പണ്ടത്തെ കാലത്തൊക്കെ നമ്മള് വട്ടൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കളിക്കൂലേ അതായത് തെങ്ങിൻ്റെ വട്ടലും ചെറിയൊരു ബോളും വെച്ചിട്ട് ഇങ്ങനെ കുട്ടികളുടെ കൂടെ ഒക്കെ കുറേ കളിച്ചിട്ടുണ്ട് അലാണ്ട് ആ പ്രവർത്തനങ്ങളിൽ അങ്ങനെ അറിയില്ല അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ക്രിക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ല പദയാത്ര അങ്ങനത്തെ കാര്യത്തിനൊന്നും ഞാൻ അങ്ങനെ അതായിട്ടില്ല ക്രിക്കറ്റ് വെറുതെ ജസ്റ്റ് ഒന്ന് നമ്മള് നമ്മള് പിന്നെ ഒരു രസത്തിനു വേണ്ടി കളിച്ചിട്ടുണ്ട്